നൃത്തം ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പം ചിരിച്ചുകൊണ്ട് കളിക്കുന്നതും കര പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നാടോടി നൃത്തത്തിൽ നമുക്ക് ഈ കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിൽ പല ഭാവങ്ങളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ആദ്യമേ ഇത്തിരി കളിച്ച് ചിരിച്ച് വരേണ്ട സംഭവങ്ങളും കുറച്ച് കഴിയുമ്പം കരയുവേം പിന്നെയും ചിരിക്കുവേം അതുപോലെയാണ് നമ്മുടെ ജീവിതവും എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കിപ്പോൾ മനസ്സിനൊരു വിഷമം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ മുഖം ഇങ്ങനെ എപ്പോഴും സങ്കടത്തോടെ നിർ നിൽക്കുന്നതല്ല നമ്മൾ നമ്മുടെ ഒരു ഡാൻസ് കളിക്കുവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ഭാവത്തിനൊരു വ്യത്യാസം നമ്മുടെ ഭാവത്തിന് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം വന്ന് കളിക്കാനും സങ്കടപ്പെടേണ്ട സമയത്ത് സങ്കടപ്പെടുത്താനും ഇപ്പം ചിരിച്ച് നല്ല നല്ല പ്ലസൻറ് ആയിട്ട് കളിക്കേണ്ട സമയത്ത് പ്ലസൻറ് ആയിട്ട് കളിക്കാനും നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുകയാണ് നമ്മൾ ഇപ്പം നമുക്ക് നം ഒരു വ്യായാമം കൂടിയാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജ്വരമാണ് അല്ലെങ്കിൽ ജീവനാണ് അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി നമ്മുടെ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു അയവ് നമുക്ക് കിട്ടും നമ്മൾ ഇങ്ങനെ എപ്പോഴും ഫുഡും കഴിച്ച് വീട്ടിലെ കാര്യങ്ങളും നോക്കി നടക്കുന്നതിൻറെ ഇടയിൽ ഡാൻസ് കളിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ മനസ്സിനൊരു ഉത്സാഹം നമ്മുടെ മനസ്സിന് നമുക്കൊരു സന്തോഷം ചിലപ്പം തുള്ളി കളിക്കുന്ന ഡാൻസുകളായിരിക്കാം ചില സമയത്ത് പൂമ്പാറ്റകളുടെ ഡാൻസുകളായിരിക്കാം ചില സമയത്ത് അങ്ങനെ പല രീതിയിലുള്ള ഡാൻസ് നമ്മുടെ ജീ ജീവിതത്തിൽ നമുക്ക് സ്വാധീനം ചെലുത്തും കാരണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ എപ്പോഴും ഇപ്പം പല പല തരത്തിലുള്ള ഡാൻസുകളാണിപ്പം പല ടെൻഷനിലാണ് നമ്മൾ ഇരിക്കുക നമുക്ക് ഇപ്പോൾ ഒരു തലവേദനയാണ് നമുക്ക് ടെൻഷൻ ആണ് നമുക്ക് എന്തെങ്കിലും സ നമുക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണ് എന്തൊക്കെ ആണെങ്കിലും നമുക്കൊരു ഡാൻസ് കളിച്ചു കഴിയുമ്പം നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകും ഇപ്പോൾ ഗ്രൂപ്പ് ആയിട്ടുള്ള ഡാൻസ് ആണെന്നുണ്ടെങ്കിൽ ഡു ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ പോയി ചെയ്യുമ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവർ നമ്മുടെ കൂടെയുണ്ട് അവ അവരുവായിട്ട് നമ്മുടെ നമുക്ക് നമ്മൾ ഇങ്ങനെ ഇത് ഇങ്ങനെ കളിക്കണം അല്ലെങ്കിൽ അങ്ങനെ കളിക്കണം അങ്ങനെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് നമ്മൾ എല്ലാവരുമായിട്ട് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലെ നമുക്കൊരു സന്തോഷം ഉണ്ടാകും നമ്മൾ ആ അതെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല സന്തോഷമായിട്ട് മ ബാക്കിയുള്ളവർക്ക് നമ്മുടെ ബാക്കി ഉള്ളവരെ നമ്മുടേതാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു കാര്യത്തിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മുടെ കൂടെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആ ഡാൻസ് കളിക്കുമ്പം അവർക്കാണെങ്കിലും ഇപ്പം നമ്മളൊരു പത്ത് പേരുണ്ട് അപ്പം അവരെ നമുക്ക് നമ്മുടേത് നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾ അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങൾ അതുപോലെ കണ്ട് അവരുടെ കൂടെ കളിക്കുമ്പം നമുക്ക് നമുക്ക് അത് കൂടുതലായിട്ട് സന്തോഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷം തരാൻ വേണ്ടി സാധിക്കും അതുപോലെ സ്വാധീനിക്കുക എന്ന് പറയുമ്പം എല്ലാ കാര്യങ്ങളും ഇപ്പം പള്ളിയുടേതായ മാർഗംകളി എടുക്കാം അപ്പം നമ്മുടെ തോമാശ്ലീഹയുടെ ചരിത്രമാണ് നമ്മൾ മാർഗംകളിയായിട്ട് കളിക്കുന്നത് അപ്പം ആ കൂടുതലായിട്ട് നമുക്കാ ഒരു വിശുദ്ധൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് കടന്നുവന്ന ആ തോമാശ്ലീഹയുടെ കാര്യങ്ങൾ നമുക്ക് കളിയിലൂടെ നല്ല പാഠമായിട്ട് നമ്മൾ കളിക്കുന്നതാണ് കളിയിലൂടെ കാണിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുമ്പം അതൊരു വലിയ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്